എൻ്റെ എക്കാലത്തെയും പാചകം ചെയ്യാനും കഴിക്കാനും എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം രസമാണ് പണ്ട് മുതലേ എൻ്റെ ഫേവറേറ്റ് കറികളിലൊന്നാണ് രസം രസം ഞാൻ ചുമ്മാതെ ചോറിൻ്റെ കൂടെ മാത്രമല്ല കഴിക്കാറ് ചിലപ്പോൾ ഞാൻ ഒരു ഗ്ലാസിലോക്കെ ഒഴിച്ച് ചുമ്മാതെ കോരി കുടിക്കാറുണ്ട് ചക്കയും രസവും മീൻ കറിയും കൂടെ ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ രസം ഉണ്ടാക്കാറുണ്ട് രസം നിർബന്ധമാണ് ഒരു കറിയിൽ ഞാനിവിടെ രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നു വെച്ചാൽ ആദ്യം എല്ലാ ഇൻഗ്രേടിയൻറ്റ്സും സെറ്റ് ചെയ്ത് വെക്കും എല്ലാം ഒരു പാത്രത്തിൽ വട്ടത്തിന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമേ ഉണ്ടാക്കാൻ തുടങ്ങാറുള്ളൂ ആദ്യമായിട്ട് ഉള്ളി ഉള്ളി തൊലിച്ച് അഞ്ചുള്ളി തൊലിച്ച് വെക്കും പിന്നെ വെളുത്തുള്ളി അഞ്ച് അല്ലി വെളുത്തുള്ളി തൊലിച്ച് വെക്കും തൊലിച്ച് വെച്ചതിന് ശേഷം ഒരു തക്കാളി നല്ല രീതിക്ക് കഴുകി അത് മുറിച്ച് വെക്കും വെച്ചതിന് ശേഷം ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി എടുക്കും പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കും അത് കൊവുരാൻ വേണ്ടീട്ട് ചില സമയത്ത് പുളി കുറച്ച് കൂട്ടിയിടും എനിക്ക് പുളിരസമാണ് കൂടുതലിഷ്ടം എന്നിട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും ചതച്ചെടുത്ത് പാത്രത്തിൽ വെക്കും പിന്നെ ഒരു കുഞ്ഞ് കാരി മുളക് കൂടെ വെക്കാറുണ്ട് അതിന് ശേഷം ഞങ്ങളിവിടെ ചട്ടിയിലാണ് രസം വെക്കാറ് ചട്ടിയിൽ വെക്കണ രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീല് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവിടെ ചട്ടിയിലാണ് രസം വെക്കാറ് ചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയൊഴിച്ച് എണ്ണയൊഴിച്ചത് ഒന്ന് ചൂടാകുമ്പോൾ കടുക് വറക്കും കടുക് വറുത്ത് അത് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ കൂടിയിട്ട് വറുത്ത് വെക്കും അതിന് ശേഷം നേരത്തെ ഇട്ടു വെച്ചിരുന്ന ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ എടുത്ത് വഴറ്റും വഴറ്റിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി തക്കാളിയിട്ട് വഴറ്റിയെടുക്കും വഴറ്റിയതിന് ശേഷം അത് നല്ല രീതിക്ക് വഴണ്ട് വരുമ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് വീണ്ടും വഴറ്റും ഇതെല്ലാം മീഡിയം ഫ്ലേമിൽ വെച്ചാണ് വഴറ്റേണ്ടത് ഹൈ ഫ്ലേമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞുപോകും അതുകൊണ്ട് മീഡിയം ഫ്ലേമിൽ വെച്ച് നല്ല രീതിക്ക് ഇളക്കി അതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരുമ്പോൾ കുരുമൊളക് പൊടി ഒരു ടീസ്പൂൺ കുരുക്മുളക് കുരുമുളക്പൊടിയും കൂടെ ഇട്ട് വഴറ്റും അതിന് ശേഷം കായപ്പൊടി ചേർക്കണം ഇവിടെ ഞങ്ങൾ കൂടുതലും പൊടിക്കായത്തിന് പകരം കട്ടക്കായമാണ് ചേർക്കാർ അതാണ് കുറച്ച് കൂടി ടേസ്റ്റെന്ന് തോന്നി അതും ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ കുവരാൻ വെച്ച പുളിവെള്ളം ആ പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കും മീഡിയം ഫ്ലേമിൽ വെച്ചാണു തിളപ്പിക്കുന്നത് അത് തിളച്ചു വരുമ്പോൾ ഞങ്ങൾ മല്ലിയില ചേർക്കും മല്ലിയില രസത്തിന് ഒരു നല്ല ഫ്ലേവറ് കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മല്ലിയില ഇട്ട രസം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കുറച്ച് തീ കുറച്ചും കൂടെ ഒന്ന് ഹൈ ഫ്ലേമിൽ വെച്ച് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ച് എടുക്കും തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് വെക്കും കഴിക്കാൻ നേരത്ത് അത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും ഓഹ് അത് കഴിക്കുമ്പോൾ അത് മണക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നും അല്ലാണ്ടു ഞങ്ങൾ ചിലപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ച് മിക്സ് ചെയ്യും എന്തോന്ന് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അത് തണുത്ത് മിക്സിയിൽ അടിച്ചിട്ടും രസം വെക്കാറുണ്ട് കൂടുതലും മറ്റേ രീതിയിലാണ് ഞങ്ങൾ രസം വെക്കാറുള്ളത് ഇതാണ് ഞങ്ങളുടെ രസത്തിൻ്റെ റസിപ്പി അത് എല്ലാം കൂടെ ഇട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്